വിദ്യാഭ്യാസ ലോണിനെക്കുറിച്ച് ഏകദേശം അനുഭവസമ്പന്നരായ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപഴകുന്നൊരു വ്യക്തിത്വത്തിനുടമയാണ് ഞാൻ ഈ ഒരു കുട്ടികൾ മാതാപിതാക്കളുടെ ഏറ്റവും വലിയൊരു ഒരാഗ്രഹമാണ് മക്കളെ പഠിപ്പിച്ചു വിദ്യാസമ്പന്നരാക്കുക എന്നതിന് അവർ അവർ ഭാവിയെക്കുറിച്ച് തന്നെ അവർക്ക് ഭാവിയെക്കുറിച്ച് ഓര്ത്തുതന്നെ അവരെ വളര്ത്തുന്നു വലുതാക്കാൻ അവർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടത്തിവിട്ടുകൊണ്ട് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് കാശ് നിലനിർത്തിക്കൊണ്ടൊന്നും മക്കൾക്കൊരു യാതൊരു ഉയർച്ച ഇല്ലായെന്ന് കണ്ടുകൊണ്ട് ഒരു വിദ്യാഭ്യാസ ലോണിനായിട്ട് നമ്മൾ ഒരു ബാങ്കുകളില് ചെന്നു കഴിയുമ്പോൾ ഒരുപാട് നൂലാമാലകളാണ് എന്നുള്ളത് പിന്നെ ഒരു മക്കൾ രണ്ടു മൂന്ന് മക്കളുള്ള കാര്ന്നവന്മാരെ സംബന്ധിച്ച് അവരെ പഠിപ്പിച്ചുകൊണ്ടുവന്നു നിലയിൽ എത്തിക്കുക എന്നു പറയുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പം അവരൊരു സാമ്പത്തിക സഹായത്തിന് സോഴ്സായിട്ട് ആഗ്രഹിക്കുന്നത് ബാങ്കുകളെയാണ് ഈ ബാങ്കുകളിൽ ലോണിട്ട് ചെന്നു കഴിയുമ്പോൾ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു നൂലാമാലകൾ തന്നെ അവർ എത്രയെത്ര എത്ര മാത്രം വിദ്യാഭ്യാസത്തിന് പോയ പേപ്പറവിടെ ശരിയാക്കി കൊണ്ടുവന്ന് ലാസ്റ്റ് വരുമ്പോൾ ആ പേപ്പറുകളൊന്നും സാൻക്ഷനാകാതെ ചിലപ്പം പല മാതാപിതാക്കൾ നിരാശപ്പെട്ട് പോകേണ്ടതാണ് വരുന്നത് തങ്ങളുടെ കിടപ്പാടങ്ങൾ വിറ്റുവരെ വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നല്ലോ എനിക്കറിയാം എനിക്ക് എൻ്റെ ഏകദേശം ഇത് ഒരു ഒരു ധാർമയം ഉള്ളൊരു കസിൻസിൻ്റെ ഒരു കുട്ടിയെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്തേക്ക് അയക്കുന്നു കൂടുതൽ കുട്ടികളും തന്നെ വിദേശത്തേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നവരുമാണ് അപ്പോൾ ഈ ഉള്ള കസിൻസിൻ്റെ ഒരു കുട്ടി വിദേശത്ത് പോകാനുള്ള ജോലിക്കായി പോകുന്നതിനുവേണ്ടി അവര്ക്ക് പൈസയുടെ ആവശ്യം വന്നു ബാങ്കിൽച്ചെന്നപ്പോൾ അവർ ആദ്യമേ പല ഡോക്യുമെന്റ്സും ഹാജരാക്കാൻ പറഞ്ഞു പല ഡോക്യുമെന്റ്സും ശരിയായി കഴിഞ്ഞപ്പോൾ ചില ചില നിസ്സാര കാരണങ്ങളാൽ ചിലപ്പോൾ കുടുംബത്തിനേതെങ്കിലും രീതിയിൽ ബാങ്കുമായിട്ട് ചെറിയൊരു ചെറിയൊരു ലോണ് ലോണുമായിട്ട് ഉണ്ടായിരിക്കാം അതുപോലും അടച്ചു തീർത്തെങ്കില് മാത്രമേ കുട്ടികൾക്ക് ലോണ് കൊടുക്കാൻ സമ്മതിക്കുകയുള്ളൂ വിദ്യാഭ്യാസ ലോണ് നൽകുള്ളു എന്നൊക്കെ പറഞ്ഞു നിരാശപ്പെട് ഒരു അനുഭവങ്ങൾ പല ബാങ്കുകളില് നിന്ന് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള ബാങ്ക് ലോണുകള് ആവശ്യപ്പെട്ട് തങ്ങൾക്ക് വേണ്ട പല കുട്ടികളുടെ ആഗ്രഹ പദ്ധതികളുടെ നിർവ്വഹണത്തിനായി ആ ഈ പദ്ധതിനിർവ്വഹണം ആഗ്രഹ സാഫല്യകരണത്തിനായി ലോണിനുവേണ്ടി ബാങ്കുകളെ ആശ്രയിക്കുമ്പോൾ അവർക്ക് ഈ ലോണുകള് ലാഭിക്കാതെ വരുമ്പോൾ അവർ മാനസികമായിട്ടും അവർ ഒരു മാനസികമായിട്ട് തന്നെ തകർക്കുന്ന ഒരു സംഭവമാണ് ഈ ബാങ്കുകളുടെ ഭാഗത്തിൽ ലോണിനെ സമ്മതം ലഭിക്കും ലോണിനായി ചെല്ലുമ്പോൾ ചില മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത് ഇനി വിദ്യാഭ്യാസം തന്നെ നോക്കാണ്ട് നമുക്കറിയാം വാ വേറൊരു കാർഷിക ലോൺ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സ് സംബന്ധമായ ലോൺ എടുക്കണമെന്നു വെച്ചാൽത്തന്നെ ഏതൊരു ബാങ്കിനെ ആശ്രയിച്ചാലും എല്ലാ പേപ്പറും റെഡി ആയിക്കഴിഞ്ഞാലും ചിലപ്പം ലോൺ അനുവധിക്കും ചിലപ്പോള് ലോൺ അനുവധിക്കില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളോ വളരെ ഒരു ബുദ്ധിമുട്ട് സമൂഹത്തിന് ഉണ്ടാക്കുന്നതുകൊണ്ട് ചിലപ്പം നിരാശപ്പെട്ട് ചിലപ്പം കുട്ടികളുടെ ഭാവി ജീവിതത്തെതന്നെ അത് ബാധിക്കാറും ഉണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുടെ കൂടുതലായും ലോണിനായിട്ട് ബാങ്കുകളെ ആശ്രയിക്കാറുള്ളതും ഇത്തരത്തിൽ ഉള്ള പ്രവണതകൾ ഒഴിവാക്കി ലോണുകൾ വളരെ ക്രമമായി എന്നുണ്ടെങ്കിൽ കൃത്യമായി അവരുടെ മാനദണ്ഡങ്ങള്ക്കനുസരിച്ച് ലോൺ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊത്ത കുട്ടികൾക്ക് തനത് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനായിട്ടൊക്കെ സാധിക്കും കാർഷിക മേഖലയില് കാർഷിക അഭിവൃദ്ധിക്ക് ഉപയോഗിക്കാനും അതോടൊപ്പം തന്നെ ബിസിനസ്സ് മേഖലകളിൽ കൂടുതൽ മുതല്മുടക്ക് നിന്നൊക്കെയായിട്ട് ഇങ്ങനെ എല്ലാം ലോണുള്ളവർ അത് കാര്യക്ഷമമായി നടത്തി കൊടുത്തുകൊണ്ട് അവർ ഉന്നമനത്തിനായി പ്രവർത്തി ആയിട്ട് സാധിക്കണം അല്ലാതെ അവരെ ഒരു വഴിയാധാരമാക്കിക്കൊണ്ടോ പൊതുവഴിയിലേക്ക് തള്ളി കളയാതെകൊണ്ട് സാമൂഹിക ഉന്നമനത്തിനായി ആയി ലോണ് നൽകി നാടകമാണവ വിദ്യാഭ്യാസ ലോണിനെ സംബന്ധിച്ചും വളരെ പരിതാപകരമാണ് ലോണ് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടല്ല അതൊരു പക്ഷേ കുട്ടികളുടെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നതിന് ആയി ഈ ലോണുകൾക്ക് വളരെ വളരെയധികം കാര്യക്ഷമത കൊടുക്കേണ്ടതുണ്ട് ഇപ്രകാരം ബാങ്കുകള് ലോണുകള് നൽകി കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി സഹകരിക്കണം അതാണ് എൻ്റെ ഒരഭിപ്രായം